നമ്മുടെ ജീവിതകാലത്ത് ഇപ്പോ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇപ്പോൾ സാങ്കേതി വിദ്യ ഭയങ്കരമായിട്ട് വളർച്ച വന്നേക്കുവാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മൊബൈൽ ഫോൺസാണ് അതില്ലാണ്ട് ആർക്കും ഇപ്പോൾ ജീവിക്കാൻ പറ്റില്ല പിന്നെ കമ്പ്യൂട്ടറും ലാപ്ടോപ്സ് ലാപ്ടോപ്പിൻ്റെ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈല് വന്നതോടുകൂടി നമ്മുടെ എന്താ പറയുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗൂഗിളിൽ ചോദിച്ച് ഡൗട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ ഒക്കെ നമുക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ ഒക്കെ നമ്മൾ അതിൽ നമ്മൾ ഒരുപാട് യൂട്യൂബിൽ ആയാലും ഗൂഗിളിലിൽ ആയാലും സെർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ ജോലി എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ജോലിയാണ് അപ്പോൾ അതായത് വാട്സ്ആപ്പ് ഓൺലൈൻ എല്ലാം ഓൺലൈനിൽ ആയിട്ടാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് തന്നെ അപ്പോൾ നമുക്ക് ഈ ഒരു ഇതുകൊണ്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യേണ്ട ആവശ്യം ഒരുപാട് ഒന്നും കൂടി വന്നാൽ ഒന്നോ രണ്ടോ മീറ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളു അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി മീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ബാക്കി എന്ത് കാര്യത്തിനും സർവീസ് സർവീസിനും എല്ലാത്തിനും നമ്മൾ ഈ സാങ്കേ സാങ്കേതിക വിദ്യ ഞങ്ങളെ സംബന്ധിച്ചും കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചും അത് വലിയൊരു കാര്യമാണ് എല്ലാംകൊണ്ടും സാ സാങ്കേതികവിദ്യ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ വല്ലാത്തൊരു നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്താ പറയുക ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഇപ്പോഴത്തെ ലൈഫിൽ സാങ്കേതിക വിദ്യ എന്നത് പക്ഷേ എല്ലാത്തിലും ഒരു ഇതുണ്ടെന്ന് പറഞ്ഞ പോലെ ദൂഷ്യ വശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും അഡിക്റ്റഡ് ആകുമ്പോൾ നമ്മൾ ഓവർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായ ദോഷങ്ങളുണ്ട് പക്ഷെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുമാത്രം